ഹലോ ആ

ആ ടീച്ചറ് കളിക്കത്തി സ്പോർട്സിൽ മോൻ എല്ലാത്തിനും ഉണ്ടോ കളിക്കെല്ലാം

ആ ആ ആ ആ അതെ സ്പോർട്സിന് വരുമ്പോൾ എല്ലാം കൊണ്ടരണെ

ആ ആ ആ ആ ക്ലാസ്സിലെല്ലാം ക്ലാസ്സിലെല്ലാം എങ്ങനെ ഉണ്ട് ടീച്ചറെ ഓൻ പഠിക്കാനെല്ലാം നല്ല ഇതാണോ അ ആ ആ ഡ്രെസ്സ് എല്ലാം കൊണ്ടെരണാ കളിക്കുന്നതിന് എല്ലാം കളിക്കുന്നതിന് ഡ്രസ്സ് വേണം ആ കാണാൻ വേണ്ടിയിട്ട് എത്ര മണി വരെ ഉണ്ടാവും പരിപാടിയെല്ലാം

ആയി ആയി ആയി ആ ആയി ആയി ആ കാണാൻ വേണ്ടിയിട്ട് ആ മക്കളെ എല്ലാം കൂട്ടിയിട്ട് വരാം കാണാൻ വേണ്ടിയിട്ടല്ലേ ആ ആ സ്പോർട്സ് കളിക്കെല്ലാം അവൻ ഉഷാർ ഉണ്ട് അല്ലേ കളിക്കെല്ലാം നല്ല ഉണ്ട് അവൻ ക്രിക്കറ്റാണ് ഭയങ്കര താത്പര്യം ക്രിക്കറ്റ് അതെയോ അ ആ ആ ആ വച്ചില്ല അല്ലേ